ഓണം പോലെയുള്ള പിന്നെ ദേശീയ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ മതക്കാരും എല്ലാ അവരവരുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ അതീതമായിട്ട് ഇപ്പോൾ അത്ത പൂക്കളം ഇടുകയും മറ്റും മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വിഷുവിന് വിഷുവിന് പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ആഘോഷം പോലെയാണ് ഓണവും വിഷവുമൊക്കെ നമ്മൾ കൊണ്ടാടുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ മറ്റു മറ്റുള്ള കുട്ടികളും ബന്ധുക്കളും എല്ലാം ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയായിട്ട് ഞാൻ കണ്ടു വരുന്നുണ്ട് മതം മതം മതം ഒരു തരത്തിലും മനുഷ്യരെ വേർതിരിച്ചു നിർത്താൻ ഉള്ളതല്ല എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ഉള്ളതാണെന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാൻ ഇത് എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ഒരിക്കലും മതം മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാനോ അല്ലാതെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്പർദ വളർത്താനോ അല്ല സമൂഹ ആയിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരിക്കലും മതം എല്ലാവരുടെയും ഒരു വ്യക്തിപരമായ ഒരു ആവശ്യമല്ല അത് പൊതുവായ ആവശ്യമായിട്ടാണ് ഈ മതം എന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഞങ്ങളുടെ സമൂഹത്തിൽ എല്ലാം മതങ്ങളെയും ഒരു പോലെ കാണുകയും എല്ലാവരുടെയും ആഘോഷങ്ങൾ നമ്മളുടേതാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണമായിട്ട് ഉണ്ടാകുന്നത് വിശ്വാസം വിശ്വാസം ജീവിതത്തിൽ ഒരിക്കലും മതം മതം ഒരു ഒരു തടസ്സമാകുന്നില്ല വിശ്വാസം അവരവരുടേതായ വിശ്വാസത്തിലാണ് എല്ലാവരും പോകുന്നത് പക്ഷെ മതം മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വരുമ്പോൾ പലരുടെയും മറ്റും മറ്റു മതക്കാരുടെ ഒക്കെ സഹകരണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വളരെ മനോഹരമായിട്ട് എല്ലാവരുടെയും മറ്റുള്ളവർ എല്ലാ മതക്കാരുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുൻ നിർത്തിക്കൊണ്ടു തന്നെ എല്ലാവരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് വളരെ മനോഹരമായി ഒരു കാഴ്ചയാണ് എല്ലാ മനുഷ്യർക്കും മതം ഒരു നിത്യ ഒരു അനുഭവമായിരിക്കും പക്ഷേ ആ മതത്തിലുള്ള ഉണ്ടാകുന്ന എല്ലാ വിധമായ ആഘോഷങ്ങളും മറ്റു മതക്കാർക്കും മറ്റു മതക്കാർക്കും കൂടി അനുഭവേദ്യമാകുന്ന തരത്തിലാകുന്നത് വളരെ മനോഹരമായ ഒരു സംഭവമാണ് വിഷുവും ഓണവും ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ ആഘോഷിക്കുമ്പോൾ അതിൽ സർവ്വമത സർവ്വമതക്കാർക്കും വേണ്ടി ആകുന്നത് വളരെ വളരെ നന്നായിരിക്കും ക്രിസ്മസിന് ക്രിസ്മസിന് എലാ പള്ളികളിലും പുൽക്കൂട് ഒരുങ്ങുകയും എല്ലാ മതക്കാരും അതുപോലെ അവരവരുടെ വീടുകൾ നക്ഷത്രങ്ങൾ തൂക്കുകയും ഒക്കെ ചെയ്യുന്നത് നിത്യസംഭവമായ ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഇങ്ങനെ എല്ലാ മനുഷ്യരും എല്ലാ മതത്തിലും ആഘോഷങ്ങൾ പിന്തുടരുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസങ്ങളാണ് ഒരു ഈ എല്ലാ ആഘോഷ ദിനങ്ങൾ ഓണത്തിന് എല്ലാവരും എല്ലാം അവരവരുടെ വീടുകളിൽ പൂക്കളം ഇടുന്നത് ക്രിസ്ത്യാനികളും അവരവരുടെ വീടുകളിൽ പൂക്കളം ഇടാറുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം പരസ്പരം മത വിശ്വാസത്തിനല്ല പ്രാധാന്യം നൽകുന്നത് മറ്റുള്ളവരുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം ആണെന്ന് കരുതിയാണ് അവരും ഇതിൽ പങ്കെടുക്കുന്നത് എല്ലാ മനുഷ്യർക്കും മതത്തിൽ മതത്തിന് ആ അതീതമായ ഒരു മതത്തിന് അതീതമായ ഒരു സമൂഹമാണ് പിന്നെ നിലനിൽക്കുന്നത് ആ അത് അവരുടെ വിശ്വാസത്തെ മാത്രമല്ല സമൂഹം നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും പരസ്പരമുള്ള സഹകരണ മനോഭാവത്തിലും അത് ഉതകുന്നതാണ് വിശ്വാസത്തിൽ ഉപരി പരസ്പരമുള്ള സഹകരണമാണ് എല്ലാ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്